എൻ്റെ ജില്ലയിലെ ആരാധനാലയം എന്ന് പറയുമ്പോള് ഒരുപാട് മുസ്ലിം പള്ളികളുണ്ട് അതുപോലെ ക്രിസ്ത്യൻസിൻ്റെ പള്ളികളുണ്ട് അതുപോലെ അമ്പലങ്ങളുണ്ട് നമ്മുടെ ഈ വയനാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നൊരു അമ്പലമാണ് വള്ളിയൂരമ്പലം അതുപോലെ തിരുനെല്ലി അമ്പലം തിരുനെല്ലി അമ്പലമെന്ന് പറയുമ്പോള് ഒരുപാട് ഹിന്ദുമതക്കാര് മാത്രമല്ല ക്രിസ്ത്യൻസും മുസ്ലിംസും അതുപോലെ ഒരുപാട് ആൾക്കാര് ഈ അമ്പലം കാണാൻ തിരുനെല്ലിയില് എപ്പോഴും എത്താറുണ്ട് അവരുടെ ഒരു അവരിപ്പോള് നമ്മുടെ ആരാധനാലയമെന്ന് പറയുമ്പോള് എല്ലാവര്ക്കും വേണ്ടിയിട്ടുള്ളതാണല്ലോ അതുകൊണ്ടുതന്നെ എല്ലാവരും കാണാനായിട്ടെത്തുന്നുണ്ട് അതുപോലെ ഇപ്പോള് ഞാൻ താമസിക്കുന്ന പ്രദേശത്തിന് എൻ്റെ വീട്ടിനടുത്തുതന്നെ മുസ്ലീംസിൻ്റെ മൂന്നുനാല് പള്ളികളുണ്ട് അതുപോലെ ക്രിസ്ത്യൻസിൻ്റെ പള്ളികളുണ്ട് ഇവയൊക്കെ ഓരോ പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമായിട്ട് ഇന്നും നമ്മുടെ ഇടയിലൊക്കെ നിലകൊള്ളുന്നതാണ് അതുപോലെതന്നെ ഉത്സവങ്ങള് ഇപ്പോള് നമ്മുടെ വടേരി അമ്പലത്തില് വർഷങ്ങളില് ഒരുത്സവം നടക്കാറുണ്ട് വള്ളിയൂർക്കാവ് മഹോത്സവം എന്നുപറയുന്നത് മാർച്ച് മാസങ്ങളിലാണ് കൂടുതലും ഉണ്ടാകാറ് മാർച്ച് മാസം പകുതിയാകുമ്പോള് അവസാനം ഇരുപത്തിയേഴാം തീയതി വരെ നടത്തുന്നൊരു ഉത്സവമാണത് ഒരുപാടെന്നുവെച്ചാല് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാര് വന്നുപോകുന്നൊരു ഉത്സവമാണ് അത് ഒരുപാട് പിന്നെ ഒരുപാട് സ്റ്റാളുകളും അതുപോലെ പിന്നെ ഒരുപാട് കുട്ടികൾക്ക് കയറാൻ പറ്റിയ പാർക്കിലുള്ളതുപോലെയുള്ള പിന്നെ തോണിത്തൊട്ടിൽ കപ്പ് സോസർ എന്നുപറയുന്ന ഒരുപാട് ഉപകരണങ്ങളും അതൊക്കെയുണ്ട് അവിടെ

ഇതൊക്കെ ജില്ലയിലെ ജില്ലയിൽ ആരാധിക്കുന്നതും ചരിത്രപരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് ഇത് സംസ്കാരത്തെയും പാരമ്പര്യങ്ങളെയുമൊക്കെ കാത്തുസൂക്ഷിക്കുന്നുമുണ്ട്